എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലകൾ കയറാനാണ് അതായത് ബീച്ചുകളോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക് മല കയറുക എന്നുള്ളത് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ ഉള്ള ഭയങ്കര ആകർഷണമായിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ എന്നു വച്ചാൽ മലകൾ കയറുമ്പം ഈ സൂര്യാസ്തമയവും ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒരുപാട് മലകൾ ഉള്ള ഒരുപാട് നമ്മുടെ ഫുഡ്ഡ് ഐറ്റംസ് കായ്കളും പഴങ്ങളും ഇതൊക്കെ പറിച്ച് കഴിച്ച് കുന്നും മലകളും കയറുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ളത് മനസ്സിന് അത്രയും ഉണർവ്വ് തരുന്നതും ഈ ഒരു യാത്രകളാണ് അതിലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും അതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് നല്ല രസമാണ് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഓരോ ചവിട്ടും വയ്ക്കുന്നത് നമ്മൾ പ്രകൃതിഭംഗി ആസ്വദിച്ചുകൊണ്ടായിരിക്കണം അതിലെ മരങ്ങൾ വൃക്ഷത്തൈകൾ പിന്നെ പല പല ഔഷധങ്ങൾ എല്ലാം കാണാനുള്ള ഒരു അവസരം കൂടിയാണ് മലകയറുന്ന സമയം